എൻ്റെ വീട്ടിൽ വളർത്തുന്നത് ചെടികളെന്നു പറയുന്നത് റോസയുണ്ട് പല തരത്തിലുള്ള റോസാ ചെടികളുണ്ട് പല കളറിലുള്ള ചെമ്പരത്തിയുണ്ട് മൈലാഞ്ചിയുണ്ട് ആര്യ വേപ്പുണ്ട് നമ്പ്യാർ വട്ടം ഉണ്ട് നാലുമണി ചെടികളുണ്ട് പിന്നെ പനിക്കൂർക്ക അരിബുധ പിന്നെ വാടാമുല്ല അങ്ങനെ ചെറിയ രീതിയിലുള്ള ചെത്തി അങ്ങനെ അത്രയും ചെടികൾ മാത്രമൃ ഇപ്പോൾ നിലവിലുള്ളൂ വള്ളിച്ചെടികളെന്നു പറയാനായിട്ട് വലിയ രീതിയിൽ വലിയ വള്ളിച്ചെടികൾ എന്ന് പറയാനില്ല കൃഷി പോലെ അവിടെ ഇവിടെ ആയിട്ട് കോവൽ കുരുമുളക് അങ്ങനെയുള്ള ഈ രണ്ട് അയിറ്റം പിന്നെ പാവലുണ്ട് ചെറിയ പാവൽ ഇത് ഇത്രയുമാണ് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്നത്